സ്ത്രീകൾ നിത്യേന നേരിടുന്ന വെല്ലുവിളികൾ പലതരത്തിലാണ് സാമൂഹികപരമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മാനസികമായും ശാരീരികമായും ഒക്കെ പലതരത്തിലുള്ള വെല്ലുവിളികളാണു സ്ത്രീ സമൂഹം നേരിടുന്നത് പ്രയേകിച്ച് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ സമൂഹത്തില് സ്ത്രീകൾക്കുള്ള പങ്കിൽ വന്ന മാറ്റങ്ങൾ വളരെ വ്യത്യസ്തമാണ് നിത്യേന നമ്മൾ കാണുന്ന ഈ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ ടി വി ചാനലുകളിലൊക്കെ സ്ഥിരമായി കാണുന്നതാണ് സ്ത്രീ പീഡനങ്ങള് അതു പ്രായഭേദമന്യേ മിക്ക സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അത് ഗാര്ഹിക പീഡനങ്ങളാണെങ്കിലും അല്ലാത്ത വഴിയോരങ്ങളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ഒക്കെയായിട്ട് അപ്പോള് അവർക്കു മതിയായിട്ടുള്ള അവകാശങ്ങള് വീണ്ടെടുക്കുകയും അതു നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലവിലെ സ്രോതസ് അവൈലബിളായിട്ടില്ല മാത്രമല്ല എന്നാൽ ഈ അതേ സമയം വിദ്യാഭ്യാസവും അതുപോലെ അവർക്കു വേണ്ടുള്ള സാക്ഷരതയയും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള പല നീക്കങ്ങളും ഇന്ത്യൻ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് അതിനാൽ തന്നെ പല മേഖലകളിലും നേതൃസ്ഥാനങ്ങളിൽ ഇന്ത്യൻ വനിതകൾ സ്ത്രീകൾ നിലക്കൊകൊള്ളുന്നുണ്ട് എന്നതു നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ എല്ലാവർക്കുമുള്ള ഒരഭിമാന നിമിഷമാണ് മാത്രമല്ല ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടെന്നാണു ചില ആളുകളൊക്കെ വിദേശികളൊക്കെ മനസ്സിലാക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പല മേഖലയിലും ഒരുപാട് ആളുകള് ഇതിനെതിരെ സപ്പോർട്ട് ചെയ്യതെ വിവിധ തരത്തിലുള്ള സ്ത്രീ പീഡനനങ്ങളാണു നിലവിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും നിത്യേന ദിനേന പത്രമാധ്യമങ്ങളിൽ ഇതിന് കാണാൻ കഴിയും മാത്രമല്ല അവർക്ക് ഈ സ്ത്രീകൾക്ക് ജോലി കിട്ടുന്നിടത്തുള്ള പല രീതിയിലുള്ള അനാസ്ഥകള് അതുപോലെ അവരെ ഒരു മാർജിനലൈസ് ചെയ്തുകൊണ്ട് അവരെ അരികുവൽക്കരിച്ചുകൊണ്ട് അവർക്കു വേണ്ട അവകാശങ്ങളൊക്കെ തടസ്സപ്പെടുത്തുകയാണ് അധിക ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിലും അല്ലാത്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ നിലകൊള്ളുന്നത് അതുകൊണ്ട് അവർക്കും ഇതേപോലെ ജോലിയിലും വിദ്യാഭ്യാസത്തിലും അതുപോലെ വേതനത്തിലുമൊക്കെ തുല്യ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നു നാം വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മാത്രമല്ല ഇന്ത്യന് സമൂഹത്തിൽ നിന്നു മാത്രമല്ല ലോകത്തു തന്നെ സ്ത്രീകളെ വളരെ അരികുവല്ക്കരിക്കുന്ന ഒരു സമയത്തും കാലത്തൂടെയാണു നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിനെതിരെ പ്രതിരോധിക്കാൻ പ്രതികരിക്കാൻ നാം മുന്നോട്ടു വരേണ്ടതാണ് സ്ത്രീകളെന്നും വീടുകളിൽ അടച്ചിടപ്പെടേണ്ടവരാണ് എന്നാണ് ചില വിവരദോഷികൾ മനസ്സിലാക്കുന്നത് അതിനെതിരെ നാം നിയമപരമായും മറ്റു രീതിയിലുമൊക്കെ മുന്നോട്ടു വന്ന് അവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളിലും നാമും പങ്കു ചേരണമെന്നും എന്നാണ് എനിക്കു പറയാനുള്ളത് അതുകൊണ്ട് ഇന്ത്യയിലാവട്ടെ എല്ലായിടത്തും സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ പുരുഷന്മാരെക്കാൾ പതിന്മടങ്ങാണ് എന്നു പറയാം